എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരു പുസ്തകശാലയുണ്ട് പുസ്തകശാലയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ചെറുപ്പത്തിലേ എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാനായിട്ട് ബാലരമയായിരുന്നു ബലരമ എല്ലാ പണ്ടൊക്കെ എല്ലാ ആഴ്ച ആ അന്നൊന്നും ഈ ഫോണിൻ്റെ ഉപയോഗമൊന്നുമില്ല വിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വായനയായിരുന്നു പ്രധാനമായിട്ടും ഒരു ഒരു സ്ഥിരമായിട്ട് വാങ്ങുന്നൊരു കടയുണ്ടായിരുന്നു അവിടെ പോയി എല്ലാ ആഴ്ചയും മുടങ്ങാതെ ബാലരമ വാങ്ങി വായിക്കുന്ന വായിക്കാതെ ഒരാഴ്ച ഉറക്കം വരത്തില്ല പിന്നെ ഒരാഴ്ചയേ ബാലരമ വായനയായിരുന്നു അങ്ങനെ എല്ലാ ലക്കവും ഒരു ലക്കം പോലും മുടങ്ങാതെ ബാലരമയുടെ ഒരു ശേഖരണം തന്നെ കയ്യിലുണ്ടായിരുന്നു പ്ലസ് റ്റു വരെ കറക്റ്റായിട്ട് മുടങ്ങാതെ ബാലരമ വാങ്ങിയിരുന്ന ഒരു പ്രായമുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഒരു ശേഖരണം തന്നെയെന്നു വേണം പറയാൻ പിന്നെ അതിനു ശേഷം ആ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ കയറിയപ്പോള് കൊച്ചു കുട്ടികളെപ്പോലെ വായിക്കാൻ പറ്റാത്തതുകൊണ്ടു പിന്നെ ബാലരമയില്നിന്നു മാറി നോവലിലോട്ടു മാറിച്ചിന്തിക്കാൻ തുടങ്ങി പിന്നെ കോളേജുകളില് ലൈബ്രറി ഇണ്ടാവും ലൈബ്രറിയില്നിന്നു പുസ്തകം എടുക്കാനുള്ളൊരവസരം കിട്ടി അങ്ങനെ നോവലുകൾ എടുക്കാൻ തുടങ്ങി അതിനായിട്ട് അതിതനകത്തു ഞാന് നാലുകെട്ടെന്നു പറഞ്ഞൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് അതുപോലെ ആടുജീവിതം അങ്ങനെ പൂവന്പഴം അങ്ങനെ നിറയെ നിറയെ നോവൽസ് വായിച്ചിട്ടുണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു നോവലെന്നു പറഞ്ഞുകഴിഞ്ഞാല് ആടുജീവിതം തന്നെയാണ് ആടുജീവിതം ആടുജീവിതത്തില് പറയുന്നതു നമുക്കു കാണേണ്ട ഒരു കാര്യം എന്താണെന്നുവച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ എന്താണ് എല്ലാവരും ഓർക്കും പുറത്തുപോയി ജോലി ചെയ്തിട്ടുണ്ടെങ്കില് നമുക്ക് ഒരുപാട് പൈസ കിട്ടും അവരെന്തോരം കഷ്ടപ്പെട്ടാണു പൈസ ഉണ്ടാക്കുന്നതെന്നൊന്നും ആരും മനസ്സിലാക്കാറില്ല പക്ഷെ എന്താണു പുറത്തുപോയി ചെയ്യുന്ന ജോലി എന്താണ് എന്തുമാത്രമാണ് അതിൻ്റെ കഷ്ടപ്പാട് അല്ലെങ്കില് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണു സത്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവാണ് ആടുജീവിതം ആടുജീവിതത്തില് അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ടിട്ട് പുറത്തുപോയി ജോലി നേടിയെന്നുള്ളതു തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോല്ത്തന്നെ മനസ്സിലാവും കാരണം ഇല്ലാത്ത പൈസയുണ്ടാക്കി രക്ഷപ്പെടണം എന്നുള്ള ഒരേ ഒരു ചിന്ത കാരണം കൊണ്ട് ആ പോയിട്ട് അവിടെ പോയി പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് നേരെചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല അവനവൻ്റെ നിത്യം നിത്യേനെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളും പോലും പ്രഭാതകൃത്യങ്ങൾ പോലും നേരെചൊവ്വേ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് അദ്ദേഹം അവിടെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതു കഴിഞ്ഞു നാട്ടിലോട്ടു വരാനാണെങ്കിലും അതെ ഒരുപാട് കിടന്നു കഷ്ടപ്പെടുന്നുണ്ട് അന്നൊക്കെ ഫോൺ വിളിക്കാനുള്ള സാഹചര്യം ഒന്നും ഇന്നത്തെ പോലെ ഇല്ല എന്നാല്പ്പോലും ഇന്നാണെങ്കിലും പുറത്തു പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താണു പറയുക അവിടുത്തെ കഷ്ടപ്പാടെന്നു പറഞ്ഞാല് ഇവിടെയുള്ള ജോലിയൊക്കെ ഇരട്ടി കഷ്ടപ്പാടാണ് അവിടെ പക്ഷേ ഇവിടെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് ആളുകൾക്കു ചെയ്യാൻ ഒരു മടിയും ബുദ്ധമുട്ടും ആണെന്നാണ് ഞാന് എന്റെ ഒരു നിഗമനം അവിടെ പോയിക്കഴിഞ്ഞാല് നമ്മളെന്തു ജോലിയാണു ചെയ്യുന്നേ എങ്ങനെയാണു കഷ്ടപ്പെടുന്നെ എന്നൊന്നും ആരും അറിയുന്നില്ല അതുകൊണ്ടുതന്നെ ആ എന്തു ജോലി കിട്ടിയാലും തൂക്കുന്ന പണിയാണേലും എന്തു ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാവുന്നൊരു ജനതയെ നമുക്കിന്നു കാണാൻ സാധിക്കും അത് അതൊക്കെ ആ ആടുജീവിതത്തില് പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകളുടെ കഷ്ടപ്പാട് ആണ് ആ ഒരു വ്യക്തിയുടെ ഒരു ജീവിതമാണ് അതിനകത്തു മെയിനായിട്ടും പറയുന്നേ